ഈ പാട്ടുകാര് സാധാരണയായി പാടുമ്പോള് വരുന്ന തെറ്റുകളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവർക്കീ ഉച്ചാരണം കൃത്യമായി വരത്തില്ല അതായത് ഇടയ്ക്ക് നാക്ക് ഇങ്ങനെ സ്ലിപ്പായി പോവുക അങ്ങനെ വരുമ്പോള് വാക്കുകള് ചിലപ്പോള് ഇപ്പോള് ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കത്തില്ല ചിലപ്പോള് വേറെ വേറെ വാക്കായിരിക്കും ചിലപ്പോള് പറയുന്നത് അപ്പോള് നാക്ക് സ്ലിപ്പായി പോയതു കൊണ്ട് ഇപ്പോള് എന്താണ് അടിച്ചുപൊളി പാട്ടുകൾ അല്ലെങ്കില് സ്പീഡായിട്ടുള്ള ഫാസ്ട്രാക്ക് പാട്ടുകളൊക്കെ പാടുമ്പോള് ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട് ഇപ്പോള് ഇപ്പോള് ഇപ്പോള് എക്സാംബിള് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ താം തണക്ക തില്ലം തില്ലം ആ ആ ഒരു പാട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ചന്ദനമഴ സന്ധ്യകളുടെ നടയിൽ നടനം ആ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കാണേലും നാക്കൊന്ന് സ്ലിപ്പായിക്കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ആ ഒരു ആ ഒരു നമ്മള് ഉദ്ദേശിച്ച വരികൾക്കേ തെറ്റുപറ്റിപ്പോകും പിന്നെ പോരാത്തതിന് ശ്രുതി തെറ്റിപ്പോവുക ഇപ്പോള് ആ ഒരേ ഈണത്തില് അല്ലെങ്കിൽ ആ പാടിയ ആ ഒരാള് പാടിയ അതേ ശ്രുതിയിൽ അതേ ഈണത്തിൽ പാടിയാല് മാത്രമേ നമുക്ക് ആ ഒരു പാട്ടിനൊരു പൂർണത വരത്തുള്ളൂ ഇപ്പോള് വേറെ ഹൈ പിച്ച് എടുക്കേണ്ടിടത്ത് ലോ പിച്ചും ലോ പിച്ച് എടുക്കേണ്ടിടത്ത് ഹൈ പിച്ചും എടുത്ത് കഴിഞ്ഞാൽ പാട്ടിൻറ്റെ ആ ഒരു ഭംഗിയേ നമുക്ക് നഷ്ട്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുണ്ട് പിന്നെ പോരാത്തതിന് നമുക്ക് ഇങ്ങനുള്ള കാര്യങ്ങള് വരുമ്പോള് നമ്മള് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒത്തിരി തവണ നമ്മള് വീണ്ടും വീണ്ടും പാടി പഠിക്കുക അതായത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എങ്കില് മാത്രമേ നമുക്ക് ഇങ്ങനുള്ള പിഴവുകള് നികത്താൻ പറ്റൂള്ളൂ ഇപ്പോള് ശ്രുതി എന്നെന്നൊക്കെ പറഞ്ഞാല് നമ്മളൊരു ശ്രുതി ബോക്സ് വെച്ചിട്ട് നമ്മള് കറക്റ്റായിട്ട് സാധകം ചെയ്യുമല്ലോ ഇപ്പോള് സരിഗമപധനിസ അത് ചെയ്യുമല്ലോ അപ്പോള് സയാണെങ്കിൽ അത് ആ ശ്രുതി ബോക്സ് വെച്ചിട്ട് നമ്മള് കറക്റ്റായിട്ട് പാടിപഠിക്കുക പാട്ട് പാടി പഠിക്കുമ്പോഴാണല്ലോ നമ്മളിപ്പോൾ ക്ലാസ്സിക്കൽ ക്ലാസിക്കൽ മ്യൂസിക് ചെയ്യുമ്പോഴാണല്ലോ നമ്മള് ശ്രുതി ബോക്സ് വെച്ചാണ് പഠിക്കുന്നത് അപ്പോള് ഒരു ശ്രുതി ബോക്സ് വെച്ചിട്ട് കറക്റ്റായിട്ട് പാടിപ്പഠിക്കുക പിന്നെ ഈ നാക്ക് തെറ്റുന്നതിന് നാക്ക് സ്ലിപ്പാവാണ്ട് സൂക്ഷിക്കുന്നതിന് നമ്മള് പലതവണ പ്രാക്റ്റീസ്യ്യുക അതുപോലെതന്നെ നമ്മടെ സ്വരം ഇടറിപ്പോകാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്ക വെള്ളി വീഴാതെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും